നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ പഴയ തൊഴിലെന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയുണ്ട് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എണ്ണ എല്ലാം ആട്ട്ന്നുണ്ട് ചക്കിലാട്ടുന്നാന്നു എണ്ണ ആക്കുന്നതും അതും അങ്ങനെ കൃഷിപ്പണിയിലിപ്പം മുമ്പെല്ലാം എന്റെ അച്ഛനച്ഛന് അച്ഛന്റെ അച്ഛനുള്ള കൃഷിപ്പണിയായിരുന്നു ആ പാടത്ത് പണിയെടുക്കുകാന്നു പറഞ്ഞാൽ നെല്ലും കണ്ടം അടക്കുന്നയായാലും എന്നു പറഞ്ഞാൽ കാളേനെ വെച്ചിട്ട് കണ്ടടക്കും പിന്നെ മുപ്പെല്ലാം ട്രാക്ടറാന്നു മുൻപ് കാളേനെ വെച്ചിട്ടാടെ നിന്നിട്ട് എന്നിട്ട് ഓ നിലം ഉഴുത് മറിക്കും എന്നിട്ട് വിത്ത് പാകി നെല്കൃഷി ചെയ്ത് നെല്ല് വളര്ന്ന് അതിന് ഒ ഒന്നൂടി എടുത്ത് പിന്നെയും അത് നട്ട് അങ്ങനെന്നാന്ന് മുമ്പ് കൃഷി ചെയ്തിരുന്നത് പക്ഷേയിപ്പോൾ കൃഷിപ്പണിക്കെല്ലാം ആളെറങ്ങുന്നത് കുറവാന്ന് ചെയ്യുന്നവരുണ്ട് അത് കൃഷി നല്ലോണം ഇതാക്കുന്നവരുണ്ട് പക്ഷേ എന്റെ അച്ഛനച്ഛന്റെ കാലത്തായിരുന്നു കൂടുതൽ കൃഷി ചെയ്യുന്നത് അവരെല്ലാം കൃഷിപ്പണിയിലായിരുന്നു അച്ഛനായാലും നമുക്കെല്ലാറിയാം എന്റെ അച്ഛനിപ്പോൾ എന്റെ മുത്തശ്ശന് വലിയ പാടവുണ്ടായിരുന്നു പാടത്തില്ന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും അമ്മുമ്മയും വലിയമ്മമാരും മാമന്മാരുവെല്ലാവരും അതിലാണ് പാടത്തിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ പഠിച്ചു പഠിപ്പുവുണ്ട് അവരെല്ലാം ഗ്രാജുവേറ്റഡാണ് പക്ഷേ അവർ അതിന് കൂടുതൽ സമയം കണ്ടെത്തുവായിരുന്നു ചെറുതിലേ അവർ ചെറുതേയത് കൂടുതല്നു മുത്തശ്ശന്റെവര് കൂടന്നെ കൂടീട്ട് ആ പണിയെടുക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളതിൽ കുറവാന്ന് കാരണംന്നറഞ്ഞാൽ അവർ നല്ല വെല് എജ്യൂക്കേറ്റഡാന്നിപ്പോയെല്ലാരും നല്ലോണം പഠിക്കും പഠിക്കുന്നുവങ്ങനെ പഠിപ്പിനിടെ നമ്മൾ നമ്മളെ സംസ്കാരൊക്കെ ഇപ്പോൾ സംസ്കാരത്തിനെ പറ്റീട്ട് പറഞ്ഞുകൊടുക്കാറുണ്ട് പക്ഷേ അവര്ക്ക് അതിനെപറ്റീട്ട് അറിയാം പക്ഷേ അവര്ക്ക് അതിനുള്ള സമയം തികയുന്നില്ല ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും അവര്ക്ക് പഠിക്കാനും ഹോം വര്ക്ക് ചെയ്യാനും അതെല്ലാം കൂടുതലുള്ളോണ്ട് കൃഷിപ്പണിക്കിറങ്ങുന്നുണ്ട് ചെറിയൊരങ്ങ് ബാക്കി ടൈമിലവര്ക്ക് ചെയ്യാന് പറ്റുന്നില്ല ഇപ്പൊളെന്നല്ലയിനി മുമ്പോട്ടായാലും അവർ നമ്മളിപ്പോൾ ഞാനായാലും തന്നെ എന്റെ അച്ഛനാന്നുച്ചിട്ടുള്ള ഞങ്ങളെ ചെറുതിലേയിങ്ങനെ കൃഷിപ്പണിക്കെല്ലാം ഇറങ്ങാറുണ്ടായിരുന്നു പക്ഷേയിപ്പോൾ നമുക്ക് ചെയ്യാന് പറ്റുന്നെഞ്ഞാ ഇപ്പോൾ രാവിലെ വീട്ടുപ്പണിം കഴിഞ്ഞ് പിന്നെ വിതിലും വന്ന് ഓഫീസിലും പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ തന്നെ ഒരു മ ഒരു പരുവാവും അപ്പോൾ നമുക്ക് കൃഷിടെ പണി സ ചെയ്യാന് പറ്റാറേയില്ല മുമ്പത്തെക്കാലത്തെയങ്ങനെയല്ല കൃഷിപ്പണിയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് എന്ന്പറഞ്ഞാൽ രാവിലെ എണീച്ച് അവരെ ജോലി ചെയ്ത് വീട്ടിലെല്ലായിതും കഴിഞ്ഞ് കൃഷിപ്പണിയിലിറങ്ങിയാൽ പിന്നെയുച്ചക്ക് ഭക്ഷണത്തിനാണ് വരുക പിന്നെ ഭക്ഷണെല്ലാം കഴിച്ച് പിന്നേം കൃഷി സ്ഥലത്ത് പോവും വൈകുന്നേരം എത്ര സമയവുണ്ട് അത്രേം നേരം വൈകുന്നേരം വരെ വേണ് വേ കൃഷിപ്പണിലന്നെ ചെയ്യേര്പ്പെട്ടിട്ടിരുന്നത് പക്ഷേയിപ്പം അതല്ല ഇപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം പഠിച്ചു കൂടുതൽ മുമ്പെല്ലാം എജുക്കേഷന് കുറവായിരുന്നു ഇപ്പോൾ പഠിച്ചു നല്ല ഉയരങ്ങളിലെത്തി ഉയരങ്ങളിപ്പൊയെന്റെ മക്കളന്നെ ഇപ്പോൾ ചെറിയ പിള്ളേരാന്ന് എന്നാലും അവര്ക്കതിന് സമയം തികയാറില്ല അവർക്ക് ചില എന്റെ ചെറിയ കുട്ടിക്കെല്ലാം ഭയങ്കര ഇന്ട്രെസ്റ്റുണ്ടതിലെല്ലാം ചെയ്യാന് പക്ഷേ അവർക്കി ഞാറാഴ്ചയൊരു ദിവസം ക ലീവിങ്ങനെയുണ്ടാവുമ്പോൾ അതിനിടക്ക് വേറെ കലാപരിപാടികള്ക്കും ക്ലാസ്സിനും അതിനുംഇതിനും പോവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷിപ്പണിക്കെല്ലാം അതിന് സമയം തികയാറില്ല പിന്നെ ഇപ്പൊളത്തെ ജനറേഷന്ന്ന് പറഞ്ഞാൽ കൃഷിപ്പണിക്ക് വരുന്നുണ്ട് ചെറിയ ശതമാനം മാത്രാന്ന് കൃഷിപ്പണിയിൽ ഇപ്പൊളത്തെ ജനറേഷനില് ഉള്ളത് എന്ന് പറഞ്ഞാൽ കൂടുതൽ വെല്ലെജുക്കേറ്റഡാന്ന് എല്ലാവരും കൂടുതലായിട്ട് നല്ല ഡിഗ്രിയും ഗ്രാജുവേറ്റും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റെല്ലാം ചെയ്യുവന്നവരാന്ന് ഇത്രെയെല്ലാം കഴിഞ്ഞവർക്ക് കൃഷിപ്പണിക്കിറങ്ങുന്നെന്ന് പറഞ്ഞാൽ പിന്നെയൊരു ഒരുമടി പോലെയാന്ന് പക്ഷേ ചിലവർ എത്ര പഠിച്ചാലും കൃഷിയെ സ്നേഹിക്കുന്ന അഗ്രിക്കള്ച്ചറിൽ സ്നേഹിച്ച് അതിലോട് ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ അതു മാത്രമല്ല ഞങ്ങളെ സംസ്കാരത്തിൽ നമ്മൾ എന്റെ കുലത്തൊഴില്ന്നു പറയുന്നത് നമ്മൾ എണ്ണയാട്ടുന്നതാന്ന് ചക്കിൽ ഇപ്പോൾ പണ്ടുകാലത്ത് എന്റെ അമ്മേടെ അച്ഛനെല്ലാം സ്വന്തം ചക്കലുണ്ടായിനി ചക്ക്ന്ന് പറഞ്ഞാൽ നമ്മുടെ കുലത്തൊഴിലാണ് അപ്പോൾ ഇതും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അതിന് എന്നു പറഞ്ഞാൽ നമ്മൾ കാളേനെ കാളേനെ കെട്ടി ഈ ചക്കിൽ കാളേനെ കെട്ടി ആ ചക്കിന്റെകത്തേക്ക് നമ്മൾ തെങ്ങേന്റെയിന് തേങ്ങേടെ അല്ലെങ്കിൽ എള്ള് അങ്ങിനെയെല്ലാം കുറെ വസ്തുക്കളിടാറുണ്ട് എണ്ണയാങ്കിൽ പിന്നെ തേങ്ങേടെ എണ്ണയെടുക്കാറുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ ഈ പോത്തിനെ സോറി കാളേനെയിങ്ങനെ ഇതിനെ ഇതിൽ കെട്ടീട്ട് ഇങ്ങനെ കാളേനെയിങ്ങനെ അടിച്ചിങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ വട്ടത്തിൽ വരും ആ വട്ടത്തിലിങ്ങനെ വന്നടക്കുമ്പൊഴാന്ന് ഇത് ഈ ചക്കയിങ്ങനേയതിന് ചി ഇങ്ങനേയരഞ്ഞരഞ്ഞരഞ്ഞരഞ്ഞു നല്ല നൈസായിട്ട് അതിനെണ്ണയൊഴുകി താഴെയിങ്ങനെ ആ ഒരു പാത്രത്തിൽ വീഴും അത് എന്നു പറഞ്ഞാൽ പണ്ടുള്ളവർക്ക് അതിനൊരു പാട്ടെല്ലാം പാടി എന്റെ മുത്തശ്ശനെല്ലാം വ അതിന്റെയൊക്കെ പാട്ടുപാടി അങ്ങനെയെല്ലാം സമയം ഇതാക്കി അതിന്റെ ഒന്നിച്ചിട്ടന്നെ ഇതാക്കീട്ട് ഫുള് ടൈം ആ എണ്ണടെ ചക്കിന്റെയാ അതിലന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിലില്ലാന്നല്ല കുറവാണ് എന്ന്പറഞ്ഞാലിപ്പെല്ലാം എണ്ണയാട്ടുന്നെലാ ആരും ചക്കി ഉപയോഗിക്കാറില്ല ചക്കയുപയോഗിക്കുന്നന്നു പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മില്ലാന്ന് നമുക്ക് മില്ലിൽ കൊടുത്താൽ അവരാട്ടിത്തരും പക്ഷേ മുമ്പങ്ങനെ മില്ലൊന്നും ഇല്ലല്ലോ അത് കുലത്തൊഴിലായതോണ്ട് ഇപ്പോളുമുണ്ട് ചക്കില്ലാന്നല്ല നമ്മുടെ തറവാട് വീടുകളിലൊക്കെ ചക്കിലാട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലെന്റെ കുട്ടികോള്ക്കെല്ലാം അറിയാം നമ്മളിപ്പോൾ കുട്ടികോള്ക്ക് സം നമ്മളെ സംബന്ധിച്ച് സംസ്കാരത്തെ പറ്റീട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് എന്റെ കുട്ടികോളതിനെയെല്ലാം നോക്കാറുണ്ട് പക്ഷെയവർക്കതിനെ പറ്റീട്ടത്ര ചെയ്യാനൊന്നും കഴിയില്ലയിപ്പോൾ കുട്ടികളാന്ന് ഇനി നെക്സ്റ്റ് ജനറേഷന് അതിലേക്ക് പോവൂന്നെനിക്ക് തോന്നുന്നില്ല കാരണം അവർ എജുക്കേറ്റഡാവുമ്പോൾ അവരിക്കതിനുള്ള ഇന്റസ്റ്റു കുറയുന്നപ്പോൾ കൂടുതൽ ഓഫീസ് പ ജോലിക്കങ്ങനെ പോവാനാന്ന് കൂടുതല് ഇപ്പോഴത്തെ കുട്ടികള്ക്ക് ഇന്ട്രെസ്റ്റ് പിന്നന്നു പറഞ്ഞാൽ നമ്മൾ തീരേയത് നഷ് നമ്മളെ സംസ്കാരം നശിച്ചു പോവാതിരിക്കാന് വേണ്ടീട്ടു നമ്മളിപ്പം ചില ഭാഗത്ത് നമ്മളെ തറവാട്ടിലുണ്ട് പിന്നെയീ നാട്ടില് രണ്ടുമൂന്നിടത്തുണ്ട് ഇങ്ങനെ ചക്കിലാട്ടുന്നതുണ്ട് കുറവാന്ന് പക്ഷെയാ ചക്കിൽ ആട്ടിയ എണ്ണ അത്രേം ശുദ്ധമായ എണ്ണയാന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ മില്ലിലെ പോലെ ഇണ്ടെ രാസവസ്തുക്കളൊന്നും ചേര്ത്തിട്ടല്ലാത് ചെയ്യുന്നത് ഇത് നല്ല ഒറിജിനലായിട്ടു നമ്മളെ എണ്ണ തേങ്ങേം ഇട്ടിട്ട് ആ തേങ്ങേനെ ആട്ടിയെടുക്കലാന്നു ഉണ്ട് ചില സ്ഥലത്ത് മാത്രവുള്ളൂ ഇപ്പോൾ അത് കൂടുതലായിട്ട് എല്ലാവരും ചെയ്യാന് ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പൊൾ മാര്ക്കെറ്റില് ലഭിക്കുന്ന എല്ലാ എണ്ണകളും എണ്ണന്നല്ല എല്ലാ സാധനങ്ങളും അങ്ങിനെയാന്നു എന്നാല് എണ്ണ കൂടുതൽ എല്ലാം മായം ചേര്ത്തിട്ടാന്നു വരുന്നത് അപ്പോൾ ഈ മായം ചേരാത്ത വസ്തുക്കൾ എല്ലാവരും വാങ്ങാന് ഇതാക്കുന്നുണ്ട് എന്ന്പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഡിമാണ്ടാന്നു മായം ചേരാത്ത വസ്തുക്കൾ കുറച്ച് റേറ്റ് കൂടിയാലും ഇപ്പം മായാം ചേരാത്ത വസ്തുക്കളാണെല്ലാവരും തേടി നടക്കുന്നത് അപ്പോൾ ഈ ചക്കിലാട്ടിയ എണ്ണ ഏടെ ഉണ്ടോ ആടെയ്ക്കാളുകളന്വേഷിച്ച് വന്ന് അതിനെ ഇതാക്കാനുണ്ട് അപ്പൊവാ അന്വേഷിച്ചു വരുമ്പോഴും നമുക്കത് ലഭ്യാക്കാനുള്ളയിതു സൗകര്യം ഇപ്പോൾ കുറവാന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ മുമ്പത്തേക്കാളും കൂ കൂടീട്ടുണ്ട് ഇപ്പൊവൊരു പണ്ടത്തെക്കാലത്ത് തീരെ നല്ലോണം ഉണ്ടായിരുന്നു അതിനെ കുറച്ചു ജനറേഷന് മോള് വന്നപോലെ തീരേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളെ കുറച്ചു നമ്മളെ സമുദായത്തിലെ ആള്ക്കാറു കുറച്ചു കൂടുതലായി ചിന്തിക്കാന് തുടങ്ങീട്ടുണ്ട് കാരണംന്നറഞ്ഞാൽ ഇതിൽ വരുമാനം ഇപ്പോൾ നല്ല പ്യൂറായിട്ടുള്ള എണ്ണയാട്ടുന്ന ചക്കിലാട്ടിയാൽ നല്ല വരുമാനം സമ്പാദിക്കാന് പറ്റുന്നുണ്ട് അതിലന്നെ മോളിൽ വന്നവർ എത്രയോ ഉണ്ട് അപ്പോൾ എന്റെ അഭിപ്രായത്തില്ന്നു പറഞ്ഞാൽ ഇനി കുറച്ചുംകൂടി ഇതിലന്നെ നല്ല കൂടുതലായിട്ട് ഇത് ചെയ്യണംന്നാന്ന് ഇത് ചെയ്താൽ ഇനിയും കൂടുതൽ എന്നുപറഞ്ഞാൽ കൂടുതലായിട്ട് ഈ മ ചക്കിലാട്ടുന്നയിങ്ങനെ വന്നാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാം മായം ചേര്ക്കാത്തതാവുമ്പോൾ നല്ല സുലഭമായിട്ട് ലഭിക്കാനുള്ള ഒരു വഴിയുണ്ടാക്കിയാൽ കൂടുതലും നമുക്ക് ഇനിയത് എന്നുപറഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിനും നല്ലത് പറഞ്ഞാൽ നാട്ടിൽ എല്ലാവര്ക്കും ഉള്ള കാ ഈ എണ്ണക്ക് വേണ്ടാത്ത എണ്ണയെല്ലാം തിന്നിട്ട് കാന്സെറും അത് വരുന്നേക്കാളും നല്ലത് നമ്മൾ നാടന് നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുന്നവരുണ്ടാക്കി ചക്കിലാട്ടിയ എണ്ണയെടുക്കുന്നാന്നു ഉത്തമമാണ് എന്റെ അഭിപ്രായം